ഹലോ ഇത് ഫാമിലി ഹോസ്പിറ്റൽ അല്ലേ അവിടെ സനിത ഡോക്ടർ ഉണ്ടോ അതോ ഡോക്ടർ ആണോ സംസാരിക്കുന്നേ അതെ എനിക്ക് പനി ഉണ്ടായിരുന്നേ അപ്പോൾ അതിന് എന്താന്ന് വെച്ചാൽ പനി തുടങ്ങിയിട്ട് ഒരാഴ്ച ആയി കാര്യം പറഞ്ഞാൽ അപ്പോൾ രണ്ട് ദിവസം മുന്നേ ഒരു ഡോക്ടറിനെ കാണിച്ചിരുന്നു നമ്മുടെ നമ്മുടെ ഇവിടെയുള്ള ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടർ ആയ ഡോക്ടർ നിഷ എന്ന് പറഞ്ഞുള്ള ഒരു ഡോക്ടർ ആയിരുന്നു അപ്പോൾ മരുന്നൊക്കെ എഴുതി തന്നിട്ടുണ്ടായിരുന്നു അത് മേടിച്ചു പിന്നെ കഴിച്ചു വലിയ കുറവില്ല ടെമ്പറേച്ചർ അന്ന് നോക്കിയിലായിരുന്നു അന്നെനിക് രാവിലെ കുറച്ച് തിരക്കായിരുന്നു അപ്പോൾ വേഗം വന്ന് ഹോസ്പിറ്റലിൽ പെട്ടെന്ന് കാണിച്ചിട്ട് വേഗം അങ്ങ് പോയി ഡോക്ടറിനെ കാണിച്ചു വേഗം മരുന്ന് മേടിച്ചു പോന്നു

അ വീട്ടില് അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ട് അത് പനിയെന്ന് പറയാൻ പറ്റില്ല ചെറിയ ചൂടൊക്കെയെ ഉണ്ടായിരുന്നുള്ളൂ അ അത് അവര് വീട്ടില് കുറച്ച് പാരസെറ്റമോൾ ഇരിപ്പുണ്ടായിരുന്നു അവരത് കഴിച്ചു അങ്ങനെ കുറഞ്ഞു പിന്നെ ഫ്രിൻഡ്സിനൊക്കെ ഭയങ്കര പനി ആയിരുന്നു അങ്ങനെ പനി കൂടിയത് ആകാനാണ് ചാൻസ് കൂടുതൽ അപ്പോൾ ഞാനും അ അ അതെല്ലേ അ അ

അ അ അ കാര്യം എന്തോ ഇല്ല എനിക്ക് പിന്നെ ചോമയിൻ്റെ ഒരു കുപ്പി മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു അതും കുടിച്ചു വലിയ കുറവൊന്നും ഇല്ല അ അതെ അവിടെ നിന്ന് അന്ന് ആവി ഒക്കെ പിടിച്ചായിരുന്നു ഒരു പ്രാവശ്യം ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ വീട്ടിൽ വന്നിട്ട് രണ്ടുമൂന്ന് പ്രാവശ്യം ഞാൻ ആവി പിടിച്ചു മറ്റ് എന്തൊക്കെയോ ഇലയൊക്കെ ഇട്ടിട്ട് അ വലിയ കുറവൊന്നുമില്ല

അ ഓക്കേ ഓക്കേ അ കഫക്കെട്ടുണ്ട് നല്ല തലവേദനയുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് വട്ടം വോമിറ്റ് ചെയ്തായിരുന്നു

എന്നാൽ അപ്പോൾ ഞാനെന്താ ചെയ്യേണ്ടത് ഡോക്ടറേ

അ ഓക്കേ ഓക്കേ അ ശരി താങ്ക്യൂ ഡോക്ടറേ